ആ ഞാൻ വന്നതേ എൻ്റെ പാൻ കാർഡിനകത്ത് പഴയ ഫോൺ നമ്പറാണ് കിടക്കുന്നത് അപ്പം ഞങ്ങക്കിൾപ്പം പുതിയ ഒരു ലാൻഡ് ഫോണാണ് കണക്ഷൻ കിട്ടിയിരിക്കുന്നത് അപ്പം ആ ലാൻഡ് ഫോണിൻ്റെ നമ്പര് ഈ പാൻ കാർഡിനാത്ത് ആഡ് ചെയ്ത് കിട്ടണം അതാണ് ആവശ്യം അപ്പം നമ്മൾ എന്തോ ആണ് അതിന് ചെയ്യേണ്ടത് എന്താണ് അതിന് എന്തൊക്കെ രേഖകളാണ് ഞാൻ അതിന് എൻ്റെ ആധാറ് കൊണ്ടുവന്നിട്ടുണ്ട് തിരിച്ചറിയൽ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട് റേഷൻ കാർഡ് കൊണ്ടു വന്നിട്ടുണ്ട് അങ്ങനെയുള്ളതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി എന്തൊക്കെയാണ് അഡീഷണലായിട്ട് വേണ്ടത് ആദ്യത്തെ ലാൻ ഫോൺ നമ്പറുണ്ടായിരുന്ന സമയത്താണ് ഈ പാൻ കാർഡെടുത്തത് ആ അപ്പം അതിപ്പം ആ ഫോണെല്ലാം ഇടക്കാലം വന്നപ്പോഴത്തേന് ബി എസ് എൻ എല്ലുകാരെല്ലാം അത് കട്ട് ചെയ്തു അതെല്ലാം പോകുകയെല്ലാം ചെയ്തു ഇപ്പം പിന്നെ വീണ്ടും ഞങ്ങൾ പുതിയതായിട്ടൊരു ലാൻ ഫോണെടുത്തതാണ് അപ്പം ഇനിയിപ്പം പുതിയതായിട്ടാവശ്യം വരുമ്പോൾ ഈ നമ്പറ് കൊണ്ടല്ലേ പറ്റത്തുള്ളല്ലോ അപ്പം ആ ലാ ആ ഈ പുതിയ പുതിയ പുതിയതായിട്ട് കിട്ടിയ ഈ ലാൻഡ് ഫോൺ നമ്പറ് ഈ പാൻ കാർഡിനകത്ത് ഒന്ന് ആഡ് ചെയ്ത് കിട്ടണം അതിനെന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത് എന്തൊക്കെയാണ് അതിന് കൊണ്ടുവരേണ്ടത് ഇതൊക്കെ ഞാൻ കൊണ്ട് വന്നിട്ടുള്ള ഈ സംവിധാനം ഇതു കൊണ്ട് മാത്രം മാതിയാകുമോ എന്തൊക്കെയാണ് വേണ്ടത് അതറിയാൻ വേണ്ടീട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതിന് വേണ്ടത് ഒന്ന് ചെയ്തുതരണം